ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ കുട്ടികൾക്ക് അപ്പോൾ ബാക്കിയുള്ള അവിടുത്തെ പോലെ മൊബൈലോ അങ്ങനെ കംപ്യൂട്ടറായിട്ടോ അത്രയധികം ഒരു ഇതില്ല ഇവിടെ പറഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കളിയും കാര്യങ്ങളും ഏർപ്പാടാണ് മെയ്നായിട്ട് എല്ലാവർക്കും ഇപ്പോൾ പെൺക്കുട്ടികളായാലും ആൺകുട്ടികളായാലും പൊതുവേ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതായത് പ്രായത്തിലുള്ള കുട്ടികള് കൂടെയുണ്ട് അപ്പോൾ അവരോടൊപ്പം വൈകുന്നേരം വന്ന് കഴിഞ്ഞാൽ കളിയും കാര്യങ്ങളൊക്കെയായിരിക്കും ഇപ്പോൾ മിക്ക ഇതിലും ഫുട്ബോള് ക്രിക്കറ്റ് വോളിബോള് അങ്ങനെ അത്യാവശ്യം എല്ലാവരുടെയും കളിക്കാൻ പറ്റുന്ന കളികള് കുറെ ഉണ്ടാവും അപ്പോൾ അവര് അതില് നല്ല കളിക്കുന്ന കുട്ടികള് പറഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ ഇവിടെ കുറെ പഞ്ചായത്ത് മേളയുണ്ടാകും പിന്നെ ലീഗ് മാച്ചുകള് ഗ്രാമങ്ങള് തമ്മിലുള്ള മത്സര ഗ്രാമ ഗ്രാമോത്സവങ്ങളില് അവരവരുടെ ടീമായിട്ട് പങ്കെടുക്ക വിവിധ പ്രദേശങ്ങളില് അവരുടെ ടീമായിട്ട് പങ്ക് അങ്ങനെ അവർക്ക് അവരുടേതാണോ കളി കളിക്കുന്നത് ആ കളിയില് അവർക്ക് കൊറച്ചും കൂടെ പ്രാവീണ്യം നേടാൻ പറ്റും പിന്നെ അത് അവരങ്ങനെ ഭാവിയില് ഡിസ്ട്രികിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചിലപ്പോൾ ഇന്ത്യൻ ടീമിലോ അങ്ങനെ നാഷണൽ ടീമ് വരെ കളിക്കാം എന്നൊരു ഭാവിയിലേക്ക് അവരെ വളർത്തിയെടുക്കാം അതുപോലെ കുറെ കോച്ചിങ് സെന്റര്കളും നം ഇപ്പോൾ കുറെ ഏട്ടന്മാരുണ്ട് അവര് ഇവരങ്ങനെ ഇപ്പോൾ കളിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ അവര് നല്ല രീതിക്ക് കളിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവര് അവർക്ക് അതിലേക്ക് കൊറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാനുണ്ടാകും അതു കൂടി അവർക്ക് കുറെ കഴിവുകള് ഇപ്പോൾ എങ്ങനെയാണ് ഒര് ലീഡർ ആവേണ്ടത് അല്ലെങ്കിൽ ഒരു മെയിൻ പ്ലെയർ എങ്ങനെ ആവേണ്ടത് ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആവേണ്ടത് അല്ലെങ്കിൽ ഒരു മെൻറ്റർ എങ്ങനെയാണ് ഒര് ടീം വികസിപ്പിച്ചെടുക്കണ്ടേത് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ കളിച്ച് ഇങ് പോക പ്രദേശങ്ങളിൽ ഏത് പ്രദേശത്ത ഇപ്പോൾ ഗ്രാമങ്ങളിലായാലും നഗരപ്രദേശങ്ങളിലായാലും കളിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു കഴിവും നല്ലൊരു വ്യക്തി ജീവിതവും നമുക്ക് കളികളിലൂടെ നമുക്ക് വികസിച്ച വികസിപ്പിച്ചെടുക്കാൻ പറ്റും